കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരിതെന്ന് പറയാൻ മാനാഞ്ചിറ സ്ക്വയർ വളരെ അടിപൊളിയായിട്ട് പ്രകൃതി ഒരുപാട് പൈൻ മുച്ചും സെൻ്ററിൽ ഒത്ത നടുവിൽ ഒരു കുളവും ഒരു ഗാർഡനിങ്ങും ആൾക്കാർക്ക് വന്നിരിക്കാനും കളിക്കാനും എക്കെ സൗകര്യം ആയിട്ട് ഒരു ഏക്കർ രണ്ട് ഏക്കറോളം ഒരു ഭൂമിയിൽ സർക്കാർ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നൊരു സെറ്റപ്പാണ് മാനാഞ്ചിറ സ്ക്വയർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ വഴി വരാനും അവിടുന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻൻ്റിൻ്റെ അവിടുന്ന് വൺ വേ തിരിഞ്ഞ് വരാനും എല്ലാം അതായത് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലിരിക്കുന്ന ഒരു സംവിധാനമാണ് മാനാഞ്ചിറ അവിടെത്തന്നെ കായിക വിനോദങ്ങൾ നടക്കുന്നുണ്ട് ആൾക്കാർ ബോൾ തട്ടി കളിക്കുന്നുണ്ട് ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് അല്ലാതെ ബോൾ കൊണ്ടുവന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നവരുണ്ട് ഫാമിലിയായിട്ട് വന്നിരിക്കുന്നവരുണ്ട് വൈകുന്നേരത്തെ ഒരു ഈവെനിംഗ് വോക്കിന് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഈ മാനാഞ്ചിറ സ്ക്വയറിനോട് തന്നെ അടുത്ത് മിഠായിത്തെരുവ് എന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് തുണിക്കടകൾ ഒരുപാട് സംരംഭങ്ങളുണ്ട് ചെരിപ്പ് ഷൂസ് തുണികൾ ജ്വല്ലറീസ് അതേപോലെതന്നെ മിക്സി അങ്ങനെയുള്ള സംഭവങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ ഖാദിയുടെ കടകൾ അങ്ങനെ ഒരുപാടുണ്ട് അവിടെ നേരിട്ട് ഒരു വെല്ലുവിളി എന്നു പറയാൻ വേണ്ടി ഒരു സ്ഫോടനം നടന്നായിരുന്നു മിഠായി തെരുവിൽ ഇനിയെങ്ങനെ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നടക്കാതിരിക്കട്ടെ അതിനെയും മാനാഞ്ചിറ സ്ക്വയറിനെയൊക്കെ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട് സർക്കാർ മിഠായിത്തെരുവ് പറഞ്ഞാൽ അവിടുത്തെ കച്ചവടം വളരെ വിജയമാണ്